ഹായ് എന്ന് എന്താ എനിക്ക് ഒരു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു പി കെ വി പി എം കെ വി വൈ കോഴ്സിനു ചേരണം എന്ന് ആഗ്രഹം തുടങ്ങിയിട്ട് കുറെ നാളായി പക്ഷേ അത് എവിടെയാണ് കോഴ്സ് ലഭ്യമാകുന്നതൊന്നും എനിക്കറിയത്തില്ല എനിക്ക് ഈ കോഴ്സിനു ചേരാനുള്ള ഒരു ഈ കോഴ്സുകൾ നന്നായിട്ട് വാഗ്ദാനം ചെയ്യുന്ന ഏതെങ്കിലും പരിശീലന കേന്ദ്രങ്ങളെക്കുറിച്ച് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എവിടെയാണ് എൻ്റെ എനിക്ക് ഞാൻ ആലപ്പുഴ നിവാസിയാണ് അപ്പോൾ എനിക്ക് എൻ്റെ പരിസരത്ത് പിന്നെ സിറ്റികളിൽ കിട്ടുന്ന ഏതൊരു കോഴ്സുകളേതാണ് എവിടെ കിട്ടും ഇതിന് എന്തൊക്കെയാണ് ഇതിൻ്റെ പരിശീലന പരിപാടികൾ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ത് എത്രയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ ഫീസ് സ്ട്രക്ച്ചർ അങ്ങനെയുള്ളത് എന്തെങ്കിലും ഉണ്ടോ ആ അതിനെക്കുറിച്ചൊക്കെ എനിക്കൊന്ന് അറിയണമെന്നുണ്ട് ഇതുകൊണ്ട് ഇത് പഠിച്ചാലുണ്ടാകുന്ന കൂടുതൽ ബെനിഫിറ്റുകളെ കുറിച്ചും ഒക്കെ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അത് അപ്പോൾ എനിക്കത് കുറേ നാളായിട്ട് ഞാനിത് ഇതീ ഈ ഒരു കോഴ്സിലേക്ക് എനിക്കും കൂടെ ഒരു കോഴ്സ് പഠിക്കണം എന്നൊരു നല്ലൊരു താത്പര്യത്തോടെയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഞാൻ ഇങ്ങനെ പല ഞാനൊരു സോഷ്യൽ വർക്കർ ആണ് അപ്പം എനിക്കത് ഇത് ഇത് പഠിച്ചാൽ കുറച്ചും കൂടി ഗുണം എൻ്റെ വർക്കിനെ ബാധിക്കും ഗുണമാ ഗുണകരമായിട്ട് ബാധിക്കും എന്നാൽ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ വന്ന് എനിക്കു ചോദിക്കുന്നത് അപ്പോൾ ഈയടുത്ത് എനിക്ക് എനിക്ക് സൗകര്യ പ്രദമായിട്ടുള്ളത് പറഞ്ഞാൽ ആലപ്പുഴയിലെ ആലപ്പുഴയാണ് ഇനി ആലപ്പുഴയിൽ ഇല്ലെങ്കിലും കോട്ടയത്ത് ആണെങ്കിലും എനിക്ക് എനിക്ക് പോസിബിൾ ആണ് എനിക്ക് പോയിട്ട് വരാൻ പറ്റും എൻ്റെ വർക്കിനെ ബാധിക്കാതെ തന്നെ എനിക്ക് കോഴ്സുകൾ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്കൊന്നു പറഞ്ഞു തരുവാണെങ്കിൽ നന്നായിരുന്നു എനിക്ക് അതിനെക്കുറിച്ച് അറിയാൻ ഞാൻ അത് അറിയാൻ തന്നെ ഇനി വേറെ ആരെയെങ്കിലും ഞാൻ ബന്ധപ്പെടണോ ആരുമായിട്ടെങ്കിലും എനിക്ക് അങ്ങനെയുള്ള ഒരു കുറച്ചു കാര്യങ്ങൾ ഞാൻ എവിടെ നിന്നാണ് അന്വേഷിക്കും ഞാൻ ഇങ്ങനെ മറ്റ് ന്യൂസിലും മാധ്യമങ്ങൾ വഴിയൊക്കെ ഞാൻ തിരക്കിയിട്ടുണ്ട് അങ്ങനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞു അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചാണ് ഞാനറിഞ്ഞത് ഇനി അതിൻ്റെ എന്തെങ്കിലും വിപരീത വശങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിയണം അതിനെ കുറിച്ച് പ്രത്യേക കാര്യങ്ങൾ അറിയാൻ ആയിട്ട് നമ്മൾ ആരോടാണ് ഒന്നു ബന്ധപ്പെടേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് താത്പര്യമുള്ള കാര്യങ്ങളാണ്